ഞാനൊരു ഞാൻ മൃഗങ്ങളെ ഒക്കെ വളർത്തും എനിക്ക് ആട് ഉണ്ട് ആടിനെ ഒക്കെ ഞാൻ നല്ലതുപോലെ കെയർ ചെയ്ത് വളർത്തുന്നതാണ് അപ്പം ഞാൻ എനിക്ക് വിദേശത്തോട്ട് പോവേണ്ട ഒരു ആവശ്യം വന്നത് കാരണത്തിന് ഞാൻ ഇതുങ്ങളെ അങ്ങ് കൊടുക്കുവാണ് അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടുകാരാണ് ഇതിനെ മേടിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ആടിനെ കൊണ്ടുപോകുന്നത് കൊള്ളാം നല്ലതായിട്ട് ഞാൻ ഇവിടെ എൻ്റെ പിള്ളേരെ നോക്കുന്നത് പോലെയാണ് അവരെ നോക്കുന്നത് അപ്പം അവരെ നല്ലതുപോലെ നോക്കണം അതുപോലെ തന്നെ ഒത്തിരി തണുപ്പൊന്നും അടിപ്പിക്കാതെ വായുസഞ്ചാരം ഒക്കെ നല്ലതായിട്ട് ലഭിക്കുന്ന കൂടായിരിക്കണം അവരെ കൊണ്ടുപോകുന്ന വണ്ടി അതുപോലെ നല്ല ഇതായിട്ടുള്ള വണ്ടിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കാരണം എന്നാ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആട് എന്നൊക്കെ പറഞ്ഞാൽ അൽപ്പജീവികളാണല്ലോ അപ്പം നമ്മൾ അതുപോലെ അവരെ നമ്മൾ നല്ലതുപോലെ നോക്കുവേം എടുക്കുവേം ഒക്കെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് അസുഖങ്ങൾ വരൂവേം എടുക്കുവേം ഒക്കെ ചെയ്യും അത് കാരണത്തിന് ഞാൻ ആടിനെ ഒക്കെ അതേ രീതിയിലാണ് നോക്കുക അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ആടിനെ നല്ല രീതിയിൽ നോക്കണം തണുപ്പുള്ളതൊന്നും അടുപ്പിക്കുവേം എടുക്കുവേം ഒന്നും ചെയ്യാതെ നല്ല ഇതായിട്ട് ആടിനെ സംരക്ഷിക്കണം അന്നേരം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫലം അതിൽനിന്ന് കിട്ടും